വേനൽക്കാലത്താണെങ്കിൽ ചെടികൾക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി ഇഷ്ടികപ്പൊടിയെ തൊണ്ട്പോ തൊണ്ട് വാഴപ്പിണ്ടി അറഞ്ഞത് ഇവയൊക്കെ ഞങ്ങൾ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് തണുപ്പിന് മുൻകരുതൽ എടുത്ത് എടുക്കും എന്നാൽ വർഷകാലം വരുമ്പോൾ ഇളിമ്പിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് വകഞ്ഞ് വിടുകയും പിന്നെ ത തണൽ കുത്തുകയും ഒക്കെ ചെയ്ത് ചെയ്യുന്നു മഴ ഉണ്ട് ശ മഴ ശക്തപ്പെട്ട് ഇതിനേട്ട് തുള്ളി തല്ലാതിരിക്കാനായിട്ട് തണൽ കുത്തുകയൊക്കെ ചെയ്യും പിന്നെ വേനൽക്കാലത്താണെങ്കിൽ ഇതിന് എന്താ വെയിലേറാതിരിക്കാനായിട്ട് തണൽ കുത്തിക്കൊടുക്കണം അല്ലെ പലക ഇട്ട് മൂടി വെക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ നാട്ടിൽ നടപ്പാക്കുന്നുണ്ട് പിന്നെ മഴക്കാലത്ത് ആണെങ്കിൽ മഴ മഴ വരുന്നതിന് മുമ്പേ മഴ വന്നാൽ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിന് വകഞ്ഞ് വെക്കുകയും വെള്ളം വകഞ്ഞ് മാറ്റി വിട്ട് അതിനെ സംരക്ഷിക്കണം ക്യണം നമ്മളെല്ലാവരും